ഇപ്പോൾ നമ്മൾ ഒരു നീന്തല് മത്സരത്തിനു മുമ്പായിട്ട് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നീന്തല് എന്ന് പറയണത് ആദ്യം നമുക്ക് സ്റ്റാമിന വേണ്ടൊരു കായിക വിനോദമാണ് എത്ര കൂടുതൽ നേരം നമുക്ക് നീന്താന് പറ്റുമോ അത്രയും കൂടുതല് നേരം നമുക്ക് സ്റ്റാമിന ഉണ്ടെന്നാണ് അര്ത്ഥം ഇപ്പോൾ ബാക്കിയുള്ള എന്താ പറയുക ഓട്ടം ചാട്ടം അങ്ങനത്തെ കാര്യങ്ങള് ഒക്കെ വച്ചിട്ട് നോക്കുകയാണെങ്കിൽ നീന്തൽ കുറച്ചു അപകടം പിടിച്ച പരിപാടിയാണ് കാരണം നമുക്ക് കുറച്ചുനേരം റസ്റ്റ് എടുക്കാന് ഇപ്പോൾ നമ്മൾ ഈ സാധാരണ സ്വിമ്മിംഗ് പൂളില് ഒക്കെ നില്ക്കുന്ന ആള്ക്കാര്ക്ക് ആണെങ്കില് കുഴപ്പമില്ല അതേമറിച്ച് പുഴയില് ഒക്കെ നീന്തണ ആള്ക്കാര്ക്കാണ് എന്ന് പറയുമ്പോൾ നല്ല സ്റ്റാമിന വേണം ഈ പുഴ കുളം അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നീന്തുമ്പോൾ സ്റ്റാമിന വേണം അല്ലെങ്കിൽ നമുക്ക് അത് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടായി വരാം എന്തെന്ന് വച്ച് കഴിഞ്ഞാൽ മറ്റേതു പോലെ ഓടി ഇപ്പം കുറേ നേരം ഓടി ഒരു അഞ്ചു മിനിറ്റ് നിൽക്കുക ഓക്കേ പ്രശ്നം ഇല്ല പക്ഷേ അതേ മറിച്ച് നീന്തല് എന്ന് പറയുമ്പോൾ കുറച്ചു ടെന്ഷന് ഉള്ള പരിപാടിയാണ് വെള്ളത്തിലാണ് അത് നമുക്ക് കൈയും കാലും ഒക്കെ കുഴഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ചിലപ്പോ നമ്മൾ മരിച്ചു പോകാനുള്ള ചാന്സ് ഉണ്ട് അപ്പം അങ്ങനെ ചില പ്രശ്നങ്ങള് ആണ് നമുക്ക് നീന്തലിനുള്ളത് പിന്നെ നീന്തല് മീറ്റിനു അല്ലെങ്കില് മത്സരത്തിനു മുമ്പായിട്ട് നമുക്ക് ടെന്ഷന് ടെന്ഷന് അടിക്കേണ്ട അവസ്ഥ അങ്ങനെ വരൂല്ല പക്ഷേ നമ്മളതിനെ ഓവര്കം ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മള് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം അത് പക്ഷേ തലേദിവസം പോയി കുറേ ഒരു അഞ്ചാറ് മണിക്കൂര് പ്രാക്ടീസ് ചെയ്തതുകൊണ്ടൊന്നും കാര്യം ഇല്ല ഡെയിലി പ്രാക്ടീസ് ചെയ്യണം ഇപ്പോൾ നമ്മൾ ഒരു മത്സരത്തിനു തയ്യാറെടുക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഡെയിലി അതിനെ കുറിച്ച് പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിന്റെ ടെന്ഷനും കാര്യങ്ങളും ഒന്നും വേണ്ട പിന്നെ അവിടെ അവര് നിയമവും കാര്യങ്ങളും ഒക്കെ നമ്മൾ മനസിലാക്കണം എങ്ങനെയാണ് അവർ മത്സരം നടത്തണത് അപ്പോൾ അതൊക്കെ മനസിലാക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ മെയിന് ആയിട്ട് ചെയ്യേണ്ടത് അവർ എന്തൊക്കെയാണ് അതിൽ മാര്ക്ക് കിട്ടുക ആ ഒരു അതിന്റെ മാര്ക്ക് എങ്ങനെയാണ് പിന്നെ ഇപ്പോൾ നമ്മൾ മലർന്നു കിടന്നു നീന്തുമ്പോൾ പിന്നെ ഈ കമിഴ്ന്നു കിടന്നു പിന്നെ നമ്മൾ കൈ മുകളിലേക്ക് അതായത് തല മാത്രം വെളിയില് വന്ന രീതിയിൽ അങ്ങനെ പല ടൈപ്പുകളുണ്ട് ഇപ്പോൾ അതിനോട് ബന്ധപ്പെട്ടു അതെങ്ങനെയാണ് അവർ മാര്ക്ക് കിട്ടണത് അതൊക്കെ നമ്മൾ നേരത്തെ തന്നെ അറിഞ്ഞേക്കണം പിന്നെ ഇപ്പോൾ എന്റെ സംബന്ധിച്ചടുത്തോളം നമുക്ക് നിന്താൻ എന്ന് പറയുമ്പോൾ നല്ല രീതിക്ക് നീന്തും ചില സമയത്ത് നമുക്ക് അങ്ങനെ ടെന്ഷനും കാര്യങ്ങളും ഒന്നും വരുന്നില്ല നീന്തണ സമയത്താണെങ്കിൽ നമുക്ക് മൈന്ഡ് ഒക്കെ ഫ്രഷ് ആയത് മൈന്ഡ് ഒക്കെ ഫ്രീ ആയിരിക്കും അപ്പോൾ ടെന്ഷനും കാര്യങ്ങളും ഒന്നും വരില്ല പിന്നേ ഇവിടെ അതായത് വെള്ളത്തിനെ പേടിയില്ല ശരിക്ക് അതാണ് ഏറ്റവും മെയിന് ആയിട്ട് വേണ്ടത് നമ്മൾ നീന്താന് പഠിക്കാന് അല്ലെങ്കില് നീന്തൽ പഠിച്ചവരായാലും വെള്ളത്തിനെ ഒരിക്കലും പേടി വരില്ല വെള്ളത്തിനെ വെള്ളം എങ്ങനെ വന്നാലും നമ്മളതിനെ തരണം ചെയ്യാന് നമ്മള് നീന്തി നമ്മൾ മിനിമം നമ്മളെങ്കിലും രക്ഷപ്പെടും എന്നുള്ള ഒരു രീതിക്ക് ഇങ്ങനെ നമ്മുടെ മനസിനെ ഇങ്ങനെ ഉറപ്പിച്ചു വെയ്ക്കണം ഓക്കെ ഒരാളെയെങ്കിലും അതിപ്പോൾ ഒരാളെ നമുക്ക് വേറൊരു ഇതും കൂടെ വേണം നമ്മളിപ്പോൾ ഒരാളെ രക്ഷിക്കാന് പോവുകയെന്നു പറഞ്ഞാൽ അതിനു നല്ല മനസ്സിന് ഉറപ്പുണ്ടെങ്കില് മാത്രമേ അതും ചെയ്യാന് പാടുള്ളൂ ഇല്ലെങ്കില് നമ്മളും അയാളും ഒരേ പോലെ നഷ്ടപ്പെട്ടു പോവും